ചേച്ചി നിങ്ങള് ഇവിടത്തെ കോളേജ് വിക്ടോറിയ കോളേജിലത്തെ ഓൾഡ് സ്റ്റുഡൻറ്റ് ആണ് ആണോ ആ ആ അത് അല്ല ചേച്ചി എനിക്ക് ആ കോളേജിൽ പി ജി ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ട് പിന്ന എങ്ങനെ എൻ്റെ പേര് രേഷ്മയെന്നാണെ ആ ഞാൻ ഇപ്പോൾ വേറ കോളേജിൽ ആണ് തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് എനിക്ക് പി ജി അവിടെ ചെയ്യണമെന്ന് ഉണ്ട് അവിടത്തെ ഇത് എങ്ങനെ ആണ് കോളേജും പരിസരം പരിസരം ഇല്ല കോളേജിലത്തെ ഇത് ഞാൻ ഫിസിക്സ് ആണ് ആ ആ ആ ആ അത് കേട്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചീനോട് ചോദിച്ച് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്ക ഒന്ന് പറഞ്ഞ് തെരാല്ലോയെന്ന് പറഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്

അതെയോ ആ ആ ആ അതെ അതെ ആ ആ ആ അതെയോ ആ ആ ആ

ഉം ഉം ഉം ഉം ഉം ഉം ആ ആ അതെയോ ഓ ഓ ഓ ഓ ഓ ഓ ആ അതെ ആ ആ അതെയോ ആ ശരി ശരി ശരി ആ ആ ആ ഉം ആ അത് അതെ ഫിസിക്സ് ഇതിൻ്റെ ഇത് ആണ് താൽപ്പര്യത്തോടെ എടുത്തത് തന്നെ ആണ് ഉം ഇത് ഇപ്പോൾ ചേച്ചീനോട് ചോദിച്ചാൽ അപ്പോൾ അവടത്തെ ഇത് ആ കോളേജിന്റെ ഇത് എല്ലാം പറഞ്ഞ് തരും എങ്കില്

ആ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ ആ ആ ഓ ആ ആ ആ

ആ ആ പി ജിക്ക് എത്ര സീറ്റാണ് അവിടെ ഉള്ളത് വിക്ടോറിയ കോളേജ് നിങ്ങളുടെ കോളേജില് ഓ അത്രയെ ഉള്ളോ ഓ ശരി ശരി ശരി ശരി ആ ആ

ആ പിന്നെ ഏജ് വരില്ലേ ചേച്ചി എനിക്ക് ഒര് താല്പര്യം ആണ് ആ കോളേജില് പഠിക്കണമെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലൊ ഇത് പണ്ടത്തെ ആ കുറെ ഇവര് അവിടെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കോളേജിനോട് ഒത്തിരി താല്പര്യം എനിക്ക് കൂടുതൽ കൊണ്ടാ ചേച്ചീനോട് അന്വേഷിക്കാനായി ചോദിച്ചതെന്ന് മാത്രം ആ ആ ആ ആ ആ

ഓ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ഓക്കെ

ആ ആ ആ ആ ആ ആ ആ ആ ആ ഫീസും ഫീസ് ഒന്നും ഇല്ല തോന്നണു ഇല്ലേ

ഓക്കെ ഓക്കെ ആ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് അവിടെ ഓ ഓ ഓ ഓ ഓ ആ ആ ആ ഉം ഉം ഓ ഓ ഓ ഓ ആ ആ ആ ആ ആ ആ ആ ഓ ശരി ശരി ഓ ഓ ഓ ഉം ആ ആ ആ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി ആ ആ ആ ആ ആ എന്നാൽ ഞാൻ വേറെ ഒര് ചേച്ചീനോടും കൂടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവര് അങ്ങനത്തന്നെ ആണ് ചേച്ചി പറയുന്ന ആ അതുതന്നെ ആണ് എന്നോടും പറഞ്ഞത് അപ്പോൾ ഒരാളും കൂടി ചോദിച്ചാൽ ചേച്ചീനോട് ചോദിച്ച് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് കേട്ടോ ചേച്ചി പറഞ്ഞ് തന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കം നിങ്ങൾ എന്താണ് പറയുക പിന്നെ എന്താണ് പറഞ്ഞത് ചേച്ചീനോട് എന്നതാണേലും ചേച്ചീടെ നമ്പർ എന്നോട് ഉണ്ട് ഞാൻ ഒന്നും കൂടി വിളിച്ചിട്ട് പറയാം കേട്ടോ ഓക്കെ ചേച്ചി എന്നാൽ താങ്ക് യു കേട്ടോ ചേച്ചി ഉം ശരി ഓ